നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാദ്യം നമ്മള് തമ്മില് സംസാരിച്ച് ആദ്യം നമ്മള് സംസാരിച്ച് തീർക്കാൻ നോക്കും അതിന് ശേഷം പറ്റില്ല എന്നുടെങ്കിലാണ് നമ്മള് നിയമപരമായിട്ടതിലേക്ക് നീങ്ങുകയുള്ളു ഇപ്പം ഭൂമിയുടെ പ്രശ്നമായാലും അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബ കാര്യങ്ങളായാലും വേധനത്തിൻ്റെ ആയാലും അങ്ങനെന്ത് കാര്യമായാലും നമ്മളാദ്യം തമ്മില് സംസാരിക്കും കാര്യം നമ്മള് നിയമപരമായിട്ടൊരോ കാര്യങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പരിഹരിയ്ക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കുന്ന സംസാരിച്ച് തീർക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത് നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിക്കും എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് അത് കോടതി വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രൊസീഡ്യേഴ്സ് കാര്യങ്ങള് ഉപയോഗിച്ച് നമ്മളത് സോൾവ് ചെയ്യും അപ്പോൾ നമുക്കിത് വരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സമാധാനപരമായിട്ട് തന്നെ അതിൻ്റെ ഗൗരവമെത്രത്തോളം അതിൻ്റെ ഗൗരവമുണ്ട് എന്നറിഞ്ഞ് അത് അതിൻടേതായിട്ടുള്ള രീതീയിൽ തന്നെ നമ്മള് പരിഹരിക്കാൻ ശ്രമിക്കും അപ്പം അത് അതില് ഒരുപാട് നമ്മള് വേറെ ആൾക്കാരെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമ്മൾ തന്നെ പ്രശ്നങ്ങള് പരിഹരിയ്ക്കാൻ ശ്രമിക്കും അതാണ് നമ്മള് ചെയ്യുക